ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു മീൻസ് പുറത്തു നിന്ന് ഒരാളെ നമ്മുടെ വിനോദസഞ്ചാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ നാട്ടിൽ ഒരു വരുമ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വച്ചാൽ മീൻസ് ഇവിടെ കൂടുതലായിട്ട് കാണാനുള്ളത് നമ്മുടെ നാട്ടിൽ അതായത് കേരളത്തിൽ ആണെന്നുണ്ടെങ്കിലും കേരളത്തിൽ ആണെന്നുണ്ടെങ്കിൽ കുടുതലായിട്ട് കാണാൻ ഉള്ളത് ഈ പുറത്തുള്ള മാതിരി ഇങ്ങന ഫാൻ്റസി അങ്ങനത്തെ സംഭവങ്ങളല്ല കൂടുതലും കാടുകൾ മലകൾ മലനിരകൾ അങ്ങനത്തെ അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലും നമ്മളെ കേരളത്തിലൊക്കെ കാണാൻ ഉള്ളത് അപ്പോൾ ഒന്ന് നമ്മൾ മീൻസ് അവേർ ആയിരിക്കണം ഒന്ന് ശ്രദ്ധിക്കണം ഒന്ന് കൂടുതലായിട്ട് കാരണം എന്താണ് ഒരുപാട് ട്രാജഡിസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ സ്വയം നമ്മൾ ഒരു ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വേസ്റ്റും കാര്യങ്ങളും ഒക്കെയാണെന്നുണ്ടെങ്കിലും അവിടെ മീൻസ് പരിസരത്തൊന്നും ഇടാതെ ശ്രദ്ധിക്കണം കാരണം നമ്മളെ കേരളത്തിലാണെന്ന് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യയിൽ ആണെന്നുണ്ടെങ്കിലും എവിടെ ആണെന്നുണ്ടെങ്കിലും വേസ്റ്റിൻ്റെ ഇത് ഭയങ്കര കൂടുതലാണ് അത് നമ്മളെ മലയാളികൾ ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് പിന്നെ പുറത്തു നിന്ന് ഒരാളും കൂടി വന്നു കൊണ്ട് ഇടുമ്പോൾ അത് പിന്നേയും കൂടുതലാവുകയേ ഉള്ളു അപ്പോൾ നമ്മളെ വരുന്ന ആളോട് പറയാം പറയണം എന്താണ് വേസ്റ്റും കാര്യങ്ങളുമൊക്കെ ശ്രദ്ധിക്കണം വേസ്റ്റും കാര്യങ്ങളൊന്നും അവിടേയും ഇവിടേയും ഒന്നും ഇടരുത് അതൊക്കെ അവരൊന്ന് ഉപദേശിക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കണം അതായത് നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ അവേറായിട്ട് ഇരിക്കണം കാരണം പുറത്തുള്ള ആൾക്കാർ ആയത്കൊണ്ട് ഇവിടെയുള്ള ആൾക്കാർ നമ്മള് ശ്രദ്ധിക്കണം എന്നില്ല അവരുടെ കൂടെയുള്ള ആൾക്കാരേക്കാളും കൂടുതലായിട്ട് അവർ ശ്രദ്ധിക്കുകയുള്ളു അപ്പം തന്നെ എന്തെങ്കിലും പ്രശ്നനങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവരെ കൂട്ടത്തിൽ ആൾക്കാർ തന്നെ ഉണ്ടാവുകയുള്ളൂ അത് കുറച്ച് ആൾക്കാരെ ഉണ്ടാവുകയുള്ളൂ അപ്പം പിന്നെ അവർ രക്ഷിക്കാനുള്ള ചാൻസും അവിടെ കുറവാണ് മീൻസ് അത്രയും ആൾക്കാരെ അറിഞ്ഞെങ്കിലൊക്കെ ഉള്ളു അങ്ങനെ ഒരു സേഫ് ആയിട്ട് കിട്ടുക അപ്പോൾ നമ്മളായിട്ട് നമ്മൾ സ്വയം ശ്രദ്ധിക്കണം പിന്നെ എന്താണെന്ന് വച്ചാല് പറ്റിക്കപ്പെടാനുള്ള ചാൻസ്സ് കൂടുതലാണ് കാരണം പുറത്ത് നിന്ന് ഒരാൾ വരുമ്പോൾ എന്താണ് ഇവിടത്തെ സാധങ്ങളുടെ വില അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷക്ക് പോവാനുള്ള വില ഒന്നും അവർക്ക് അറിയുന്നുണ്ടാവില്ല അവർ നമ്മൾ ചോദിക്കുന്നതിന് അനുസരിച്ച് കൊടുക്കും അപ്പോൾ കറക്റ്റ് ഇവിടെ അറിയുന്ന ഒരാളെ വച്ച് അവർ നടക്കുന്നതാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും കാരണം വിലകളും കാര്യങ്ങളും ഒക്കെ അവർക്ക് മനസ്സിലാക്കാം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്